ആ ഞാൻ പി എം കെ വി വൈൻ്റെ ഒരു കോഴ്സ് ഇപ്പം കംപ്ലീറ്റ് ചെയ്തിരുന്നു അപ്പോഴതിൻ്റെ കുറച്ച് മൊഡ്യൂളുകൾ ഞാൻ പൂർത്തിയാക്കി അപ്പോഴതെനിക്ക് അതിൻ്റെ എൻ്റെ പ്രകടനം എങ്ങനെ ഉണ്ട് എൻ്റെ റിസൾട്ട് അറിയാൻ എനിക്ക് താത്പര്യമുണ്ട് അപ്പോൾ എൻ്റെ പ്രകടനം എൻ്റെ പ്രകടനം എങ്ങനെ ട്രാക്ക് ചെയ്യുന്നതെന്നുള്ളതെനിക്കറിയില്ല കേട്ടോ അപ്പോഴത് എങ്ങനെ ചെയ്യാമെന്നുള്ളതിൻ്റെ ഒരു ഒന്നു പറഞ്ഞു തരുമോ എനിക്ക് അതിലൂടെ എനിക്കെൻ്റെ പുരോഗതി മനസ്സിലാക്കാൻ പറ്റും എനിക്കത് ആ പുരോഗതി മനസ്സിലാക്കാൻ പറ്റുമെന്നു മാത്രമല്ല എനിക്കീ എൻ്റെ പ്രകടനം വിലയിരുത്തി എനിക്ക് കുറച്ചു കൂടി അത് എനിക്കത് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും പിന്നെ എൻ്റെ പുരോഗതി മറ്റുള്ളവരായിട്ടെനിക്ക് പങ്കിടാനും പറ്റും അപ്പോൾ എൻ്റെ പ്രകടനം നിരീക്ഷിക്കുന്ന നിരീക്ഷിക്കേണ്ടതിൻറ്റാവശ്യകത ഉണ്ട് അപ്പോഴെനിക്കതൊന്ന് ട്രാക്ക് ചെയ്യുക എങ്ങനെയാണെന്നൊന്നു പറഞ്ഞു തന്നിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു ആ ഈ വെബ്സൈറ്റിൽ എങ്ങനെയാണതെടുക്കുന്നത് അത് നമുക്ക് ആധാർ നമ്പർ വല്ലതും വേണമോ അല്ലെങ്കിൽ മൊബൈൽ നമ്പർ മാത്രം മതിയോ പിന്നെ അല്ലെങ്കിൽ ഞാൻ ഓഫീസിൽ ചെന്നന്വേഷിക്കേണ്ട ആവശ്യമുണ്ടോ പി എം കെ പി വൈയുടെ ഓഫീസിൽ പോയി അന്വേഷിക്കേണ്ട അതോ ട്രെയിനിംഗ് സെൻ്ററിൽ നിന്നാണോ ഇതു കിട്ടുന്നത് അപ്പോൾ എനിക്കറിഞ്ഞൂ കൂടാ ഇതെങ്ങനെ ചെയ്യണമെന്നുള്ളത് അപ്പോൾ താങ്കളുടെ സഹായം കിട്ടിയിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു അപ്പോൾ ഈ ഈ പൂർത്തിയാക്കിയ ആ കോഴ്സിൻ്റെ ആ മൊഡ്യൂളുകളുടെ ഒരു പ്രകടനമാണ് എനിക്കറിയേണ്ടത് അപ്പോൾ അതെങ്ങനെ ചെയ്യാമെന്നുള്ളതെന്നൊന്നു പറഞ്ഞു തരാൻ പറ്റുമെങ്കിൽ കൊള്ളാമായിരുന്നു അതൊന്നു പറഞ്ഞു തരുമോ